ഹലോ ഇത് ലീലേച്ചിൻ്റെ പൂക്കടയല്ലേ ആ ലീലേച്ചീ പിന്നെ എനിക്ക് ഫെബ്രുവരി പതിനഞ്ചിന് എൻ്റെ മോളെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് നമ്മളെ ചിന്മയാ ഹോളിൽ വച്ചിട്ട് നടത്തുന്നതാണ് ഒന്ന് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ലിലേച്ചിൻ്റെ അവിടുന്ന് ആൾക്കാർ വന്ന് ചെയ്യുമോ

ആ അപ്പം നല്ല നല്ല പൂക്കൾ തന്നെ ആ ഡെക്കറേഷന് ആ വല്യ വല്യ ഡാലിയയും ആ പിന്നെ റെഡ് റോസും കൊണ്ടുമൊക്കെ അതൊക്കെയുണ്ടാവുമോ ഡെകൊറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആ ആ ആ

അപ്പം ഇതിൽ ആ നല്ല പൂ കൊണ്ട് വന്നിട്ട് തലേ ദിവസം വന്ന് ഇപ്പോൾ പതിനഞ്ചിന് ഫങ്ങ്ഷൻ ആകുമ്പോൾ പതിനാലിന് വന്നിട്ട് നിങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് മൊത്തം നിങ്ങളൊരു മൊത്തം ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു അപ്പം ഒന്ന് വന്നിട്ട് ചെയ്ത് തരണേ ചിന്മയാ ഹോള് അറിയില്ലേ നമ്മൾ ഇവിടെ കളക്ട്രേറ്റിൻ്റെ തൊട്ടിപ്രം വരുമ്പോഴുള്ള അറിയാലോ ലൊക്കേഷൻ അയച്ച് തരേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലാ അല്ലേ അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഈ ഡെക്കറേഷനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല അപ്പം നിങ്ങളെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നല്ലത് തന്നെ അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്ന് ആ നല്ല മോഡലായിട്ടുള്ള അപ്പോൾ അതിൻ്റെ റേറ്റൊന്നും നിങ്ങൾ ചെറിയ ഫോട്ടോസ് എന്തെങ്കിലും സ്റ്റേജിൻ്റെ ഫോട്ടോസൊ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഇട്ടിട്ട് അതിൻ്റെ റേറ്റും ആ ഡെക്കറേറ്റ് ചെയ്യാനുള്ള റേറ്റും എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സ്അപ്പ് ചെയ്യുമോ അഡ്വാൻസ് ചെയ്യുമല്ലോ അപ്പം ആ നിങ്ങൾ അപ്പം ഒരു രണ്ട് മൂന്ന് തരത്തിലുള്ള ഡിസൈൻ ഇട്ടാലും ഞാൻ അതിലേത് ഇഷ്ടമാണെന്ന് വച്ചിട്ട് റേറ്റും അതും നോക്കിയിട്ട് താരതമ്യം ചെയ്തിട്ട് ഏതാ വേണ്ടതെന്ന് വച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ച് വാട്സാപ്പിടാം ആ പെണ്ണിന് ആ കുറച്ച് പൂ ആ കുറച്ച് അല്ല ഡെക്കറേഷനല്ല കുട്ടിക്ക് കുട്ടിക്ക് ചൂടാൻ നമ്മൾക്ക് കുറച്ച് ചൂടാൻ കുറച്ച് മുല്ലപ്പൂ വേണം ഒരൂ അഞ്ചടി അഞ്ചടി മുല്ലപ്പൂ ഇരുന്നോട്ടെ ഏ അപ്പം ഞാൻ വീണ്ടും വിളിച്ച് പറഞ്ഞ് ആക്കേണ്ട ആവശ്യം ഇല്ലല്ലോ ഓർമിപ്പിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കണം എന്നാൽ ശരിയായിട്ട് ഒന്ന് ആദ്യം അയക്ക് വാട്സപ്പിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെയൊന്ന് വിളിക്കണം കേട്ടോ എല്ല ഇതാ ഡേറ്റ് പതിനഞ്ച് പതിനാലിന് നിങ്ങൾ വന്നിട്ട് രാത്രി എല്ലാം സെറ്റാക്കി വെക്കണം പതിനാഞ്ച് വരെ വയ് ക്കേണ്ട ഓക്കെ ആ ഞാൻ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ ഞാൻ തിരിച്ചിട്ട് ഏതാണ് വേണ്ടത് വച്ചിട്ട് ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി